ആ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഒരു മാനേജറും മാനേജർ ഉണ്ടാവൂല്ലേ മാനേജറ് പറയും ഇന്ന ദിവസത്തിനുള്ളില് ഫയല് ഫുള്ള് കമ്പ്ലീറ്റ് ചെയ്ത് ഇന്ന് ടേബിളിൽ കൊണ്ട് വെക്കണമെന്ന് പറയില്ലേ ഞാൻ വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഐറ്റി കമ്പനി കുറെ ഫയൽസൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്ന ദിവസത്ത് ഇന്ന സമയത്തിനുള്ളിൽ നമ്മളടത്ത് പറയും ആ ടേബിളിൽ കൊണ്ട് പോയിട്ട് ഫുൾ എല്ലാം തീർത്ത് പ്രൊജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് സെറ്റാക്കിയിട്ട് കൊണ്ട് വെക്കണമെന്ന് പറയും നമ്മളെന്ന് പറയുമ്പം അതിപ്പം ചിലപ്പം നേരത്തെ കഴിയും ചിലപ്പം താമസിച്ചൊക്കെയെ കഴിയുള്ള് താമസിച്ച് കഴിയുന്ന ദിവസങ്ങളില് നമ്മള് അങ്ങനെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവൂലേ അപ്പം ആ ഡേറ്റില് തീരില്ലങ്കിൽ നമ്മള് ഹാർഡ് വർക്ക് എടുക്കും എന്ന് പറയുമ്പം ഇപ്പം നമ്മള് ഒന്നൂല്ലങ്കിൽ രാവിലെ നേരത്തെ ചെന്ന് പണിയെടുക്കും ഇല്ലെങ്കിൽ ആറ് മണിക്ക് പണി കഴിയുവാണെങ്കില് നമ്മളത് ഏഴ് മണി വരെ അവിടെ ഇരുന്ന് ആ പണിയൊക്കെ തീർത്ത് ഇതാക്കും അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഫാമിലിൻ്റെ കൂടെ ചിലവഴിക്കാണ്ട് നമ്മളൊരു റൂമിലിരുന്ന് ഈ പണിയക്കെ എടുത്ത് ചിലവഴിച്ചങ്ങനെ ഇതാക്കിയാലാണ് നമുക്ക് ഒരിതുണ്ടാവുള്ളൂ ഇപ്പം ഒരു ദിവസം മുന്നേ തീർത്ത് കഴിഞ്ഞാൽ അത്രയും സന്തോഷായിരിക്കും നമുക്ക് ആ വർക്കക്കെ ചെയ്ത് കറക്റ്റായിട്ട് നമ്മള് ഓഫീസില് വച്ചല്ലോ എന്നുള്ളൊരു ഇതിണ്ടാവും അതിനേക്കെയാണ് പറയുന്നത് ഇപ്പം അങ്ങനെ കുറെ ഹാർഡ് വർക്കക്കെ ചെയ്ത് നമ്മള് ഇങ്ങനെ കുറെ വർക്കൊക്കെ ചെയ്തിട്ട് ഉണ്ട് അതിനെയാണ് പറയുന്നത്